എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി രീതി എന്നു പറഞ്ഞാല് എനിക്ക് പ്രകൃതിയെ പ്രകൃതിയിലൂടെ ഉള്ളത് അതായത് പ്രകൃതിയെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി മിക്കതും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നു വെച്ചാല് മേഘങ്ങൾ കാട് പൂക്കൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ജീവജാലങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പ്രകൃതിയിൽ കാണുന്ന എന്തും എൻ്റെ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധമുള്ളതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ചാല് ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതെനിക്ക് വേറെ എവിടെ നിന്നും കിട്ടും കിട്ടിയിട്ടില്ല എനിക്കത്രയും ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി എന്നു വച്ച് കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ ഒരു മാനം അല്ലെങ്കിൽ കുറേ മേഘങ്ങൾ ഉള്ള ഒരു ആകാശം അതൊക്കെ എപ്പോഴും എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്ന ഈ ഇതുപോലെത്തെ ഉള്ള കാര്യങ്ങള് ഞാൻ ഫോട്ടോ എടുത്തു വയ്ക്കും അതാണ് എനിക്ക് കൂടുതലും കൂടുതൽ എനിക്കിഷ്ടം ഫോട്ടോഗ്രാഫിയെ കുറിച്ച് എനിക്ക് അത്രയാണ് കാരണം എനിക്ക് സന്തോഷം നൽകുന്ന ഓരോ നിമിഷങ്ങളും ചുറ്റും ചുറ്റും ഉണ്ടാകും പ്രകൃതിയിൽ ഓരോന്ന് ഞാൻ കാണും അത് പിന്നെയും കാണുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനാ ഫോട്ടോഗ്രാഫി അപ്പോത്തന്നെ ഫോട്ടോയെടുത്ത് വയ്ക്കുന്നത്